വിദ്യാഭ്യാസത്തിലും തൊഴിലും സാമൂഹിക നിലയിലും ഒക്കെ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾ ഏറെ വ്യത്യാസ പെട്ടിട്ടുണ്ട് ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ അല്ല കേരളത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് സ്ത്രീകൾ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ എല്ലാറ്റിലും മുൻപന്തിയിൽ ഉണ്ട് എങ്കിൽ പോലും ചില സ്ത്രീകൾക്ക് ഇന്നും പുറത്ത് പോയി വീട്ടിൽ നിന്ന് പുറത്ത് പോയി ജോലി ചെയ്യാനും അതുപോലെ പിന്നെ പഠിക്കാനും ഉള്ളൊരു അവസരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ ഇപ്പോൾ പുറത്ത് ഇറങ്ങിയാൽ പിന്നെ പുരുഷൻ സ്ത്രീ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ കാഴ്ചപ്പാടാണ് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഇറങ്ങി നടക്കുന്നത് മറ്റുള്ളവർ പറയുന്നു ഇപ്പോൾ എന്താ പുരുഷന്മാർ പോകുന്നുണ്ട് എന്നാൽ സ്ത്രീകൾക്ക് പൊയ്ക്കൂടേ എന്നുള്ളൊരു ചോദ്യം വന്നാൽ അവർ സ്ത്രീയാണ് എന്നുള്ളൊരു ചോദ്യം വരെ അവിടെ ഉയരുന്നുണ്ട് അതും ഒരു വലിയ ഒരു ലിംഗ സമ ലിംഗ അതിക്രമമോ ലിംഗ പക്ഷാപാതവുമാണ് ഇപ്പോൾ സ്ത്രീ പുരുഷൻ എന്നില്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സ്ത്രീയും പുരുഷനും എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ത്രീയ്ക്ക് പുരുഷൻ എന്ത് ചെയ്യുന്നു അത് തന്നെ സ്ത്രീക്ക് ചെയ്യാൻ ഉള്ള അവകാശവും നിയമവും ഇന്ന് ഈ കേരളത്തിൽ നിലവിലുണ്ട് എങ്കിൽ പോലും പഠനത്തിനായിക്കോട്ടെ ജോലി ചെയ്യുന്നതിനായിക്കോട്ടെ എല്ലാറ്റിനും ഒരു വിവേചനമുണ്ട് അതിന് മാത്രമല്ല വീടിനുള്ളിൽ തന്നെ വിവേചനം നടക്കുന്നുണ്ട് എന്ത് കൊണ്ടെന്നാൽ ഇപ്പോൾ സ്ത്രീകളാണ് വീട്ടിൽ ജോലികൾ എല്ലാം ചെയ്യുന്നത് പാത്രങ്ങൾ കഴുകേണ്ടത് അടിച്ചുവാരേണ്ടത് എന്നുള്ളൊരു കാഴ്ചപ്പാട് പണ്ട് പണ്ട്മുതൽ വീട്ടിലുള്ള അമ്മ അമ്മ അമ്മ അമ്മ അമ്മമ്മാരിക്കും മുത്തച്ഛനും മുത്തശ്ശിമാർക്ക് ഒക്കെ തലയിൽ ഉളള അവർ കൈ മാറി കൈ മാറി ഇന്നും അത് ചില വീടുകളിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സ്ത്ര പുരുഷനൊന്ന് അടിച്ചു വാരി അതാ പുരുഷൻ അടിച്ചു വാരുന്നു എന്നുള്ള ഒരു ബോധവും വരുന്നേ എന്നാൽ സ്ത്രീയാണ് ചെയ്യേണ്ടത് എന്ന് കുട്ടികൾക്ക് വരേ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നും അത് കൊണ്ട് തന്നെ വലിയ ഒരു വിവേചനം തന്നെയാണ് ഇവിടെ നടന്ന് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ത്രീ ആയിക്കോട്ടെ വീട്ടിലുള്ള എല്ലാ ജോലികളും തീർത്ത് കുട്ടികളെയും നോക്കിയാണ് അവർ ജോലിക്ക് പോയിക്കൊണ്ടരിക്കുന്നത് എങ്കിൽ പുരുഷന്മാർക്കോ അതൊന്നും നോക്കേണ്ടത് ഇല്ല രാവിലെ ബ്രേക്ക് ഫാസ്റ്റും കഴിച്ച് അവർക്ക് ജോലിക്ക് പോകാം അവർ വീട്ടുകാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും അവർക്ക് അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാൽ സ്ത്രീകൾ ഈ വീടും ജോലി സ്ഥലവും ഒരുപോലെകൊണ്ട് നടക്കേണ്ടത് ആയിട്ട് വരുന്നുണ്ട് ഒരു വലിയ വിവേചനം തന്നെയാണ്